മൃഗ വളർത്തലിൽ കർഷകർ ഒരുപാട് കാര്യങ്ങൾ അഭിമുഖരിക്കുന്നുണ്ട് അത് ഒരുപാട് ഇപ്പം മൃഗങ്ങളുടെ രോഗങ്ങളെ അതുപോലെയുള്ള കാര്യങ്ങൾ പക്ഷികളെയാണേ പ പക്ഷിപനിയെ അതുപോലെ എല്ലാ മൃഗങ്ങൾക്കും പകർച്ചവ്യാധി പശുവാണേ കുളമ്പ് രോഗം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞ എനിക്കൊരു ഞാൻ ആടിനെ കോഴിയെ എല്ലാം വളർത്തിക്കൊണ്ടിരുന്നതാണ് ആടിനാണെ മൂത്രത്തിൽക്കല്ല് അങ്ങനെ പല അസുഖങ്ങളും എൻ്റെയാടിനു ഉണ്ടായിട്ടുണ്ട് അതുപോലെ ആശുപത്രിയിൽ കൊണ്ടു പോകണം അത് പാടാണ് അതുപോലെ ഇപ്പോൾ എനിക്കൊരു പട്ടിയുണ്ട് ആ പട്ടിക്കാണെങ്കിൽ ട്യുമർ ഉണ്ടായിട്ട് അതിനെ കൊണ്ടു പോയി ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെ ഒരുപാട് വെല്ലുവിളികളാണ് നമ്മൾ നേരിട്ടു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഓമനിച്ചു വളർത്തുന്ന മൃഗങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കതുപോലെ വിഷമം ആണ് അതിനെ ആശുപത്രിയിൽ കൊണ്ടു പോകണം അതുപോലെ തന്നെ നമ്മൾ നോക്കുന്നതു പോലെ എല്ലാവരും നോക്കണമെന്നില്ല മ് പിന്നെ കുളമ്പ് രോഗ പശുവൊക്കെയാണെങ്കിൽ അതിനു കുളമ്പ് രോഗമുണ്ടായി അതു ച ചത്തുപോകുന്നതു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടു വന്നു കഴിയുമ്പോഴത്തേന് ഇതിങ്ങൾക്ക് അസുഖം വന്നു കഴിയുമ്പോഴത്തേക്കിനാണ് പാട് അങ്ങനെ അപ്പം അസുഖം ഇല്ലാതിരുന്നു അസുഖം വന്നാൽ ആശുപത്രിയിൽ പോകണം ഭയങ്കര ഇതാണ് നമ്മൾ നോക്കുന്നതു പോലെ ആരും അതുങ്ങളെ അന്വേഷിക്കാറുമില്ല പിന്നെ പക്ഷിയാണെങ്കിൽ പനി വന്ന് എല്ലാത്തിനെയും കൊന്നു കളയും നമ്മളോമനിച്ചു വളർത്തിക്കൊണ്ട് വരുമ്പോഴായിരിക്കും അതിങ്ങൾക്കീ അസുഖം ഉണ്ടാകുന്നത് ഞ് പട്ടിയെയാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു അസുഖം വന്നാലും ഉടനെ ഹോസ് ആശുപത്രിയിൽ കൊണ്ടു പോകണം ആശുപത്രിയിൽ കൊണ്ടു പോയി അത് ഒത്ത് ഒരുപാട് രാത്രിയാകും ഇതുപോലെ ആശുപത്രിയിൽ നിന്നു മൊ ഓപ്പറേഷൻ കഴിഞ്ഞു കൊണ്ടു വരുമ്പൊഴൊക്കെ ഒത്തിരി പാടായിരുന്നു അതുപോലെ അതിനും അതിനു പറ്റിയ മരുന്നു കൊടുക്കണം അതുപോലെ ഭ ഫുഡ്ഡൊന്നും അങ്ങനെ ഒത്തിരി കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ പൊടിയരിക്കഞ്ഞി ഇതൊക്കെ വെച്ചാണ് ഞങ്ങൾ കൊടുത്ത് ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഇറച്ചിയാണെങ്കിലും ഇത്തിരിയൊന്നും അങ്ങനെ കൊടുക്കാൻ മേല അതൊക്കെ വേവിച്ചു അടർത്തി ചെറുതാക്കി അങ്ങനെയൊക്കെ വേണം ഇത്തിരി കൊടുക്കാനായിട്ട് അങ്ങനെ പക്ഷിയും നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ പരിപാലി മൃഗങ്ങളെ പരിപാലിക്കുന്ന നല്ല സ്നേഹമായിട്ട് നമ്മളിതുങ്ങളുടെ അടുത്തു നിന്നാൽ അതുങ്ങൾ നമ്മളെ അതുപോലെ തന്നെയാണ് നമ്മളോടു സ്നേഹം അതുപോലെ ത എനിക്കൊരു തത്തയുണ്ട് തത്തയാണേൽ എന്നെ എന്നാ വർത്താനവും എന്നോടു ഭയങ്കര ഇഷ്ടമാണ് എന്നോട് ഞ എന്നെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ഇതാണ് കാണുമ്പോൾ എവിടെയെങ്കിലും പോയാൽ എനിക്കു റ്റാറ്റ തരും അങ്ങനെയൊക്കെയാണ് പക്ഷേ എൻ്റെ തത്ത അതുപോലെ തന്നെ മൃഗങ്ങളെ പരിപാലിക്കുന്നതിനു ഒരുപാട് ഇതുണ്ട് നിങ്ങൾ നമ്മളെവിടെയെങ്കിലും പോകുമ്പോഴത്തേന് അതുങ്ങളെ ആരെങ്കിലും ഏല്പിച്ചു കഴിഞ്ഞാൽ അവരതിനെ ശരിക്കും നോക്കണമെന്നില്ല എന്നാലും എനിക്ക് ഇയ്യിടെ ഒന്ന് രണ്ട് സ്ഥലത്തു പോകേണ്ട വന്നപ്പോഴത്തേക്കും ഞാനൊരാളെ ഏല്പിച്ചിട്ടാണ് പോയത് അത് ഓപ്പറേഷൻ കൂടി കഴിഞ്ഞാൽ ന്ത പ പട്ടിയായതുകൊണ്ട് അതിനെ അതുപോലെ നോക്കണമായിരുന്നു